ഇന്ത്യലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങളാണ് ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന ഒരുപാട് ഫാൻസ് ഉള്ളത് ഒക്കെ ആയിട്ടുള്ള ഒരു ജനപ്രിയമായ ഒരു കാനിക കായിക വിനോദം തന്നെയാണ് ക്രിക്കറ്റ് എന്നു പറയുന്നത് അതു പോലെ തന്നെ ഫുട്ബോൾ ഫുട്ബോൾ അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും ഒരുപാട് ആളുകൾ സ്നേഹിക്കുകയും ഒരുപാട് മൈതാനങ്ങളിൽ കളിച്ച് വളർന്ന ഒരുപാട് താരങ്ങളൊക്കെ ആ ഒരു ഫുട്ബോൾ മേഖലയിലൊക്കെ വളർന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ പിന്നെ കബഡികളി അങ്ങനെയുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായിട്ട് കായിക വിനോദങ്ങളായിട്ട് വളരുന്നതു കൊണ്ട് ഒരു പ്രശസ്തരായ ഒരു കായിക താരമാണ് പി റ്റി ഉഷയൊക്കെ ഓട്ടത്ത് ഓട്ടത്തിലൊക്കെ അതൊരു ജനപ്രിയമായ ഒരു വിനോദം തന്നെയാണ് യഥാർത്ഥത്തിൽ